ആ ഞാനീ കാര്യത്തില് വിശ്വസിക്കുന്നുണ്ട് കാരണം നമ്മള് ഇന്ന് വിരൽത്തുമ്പില് ഇരുന്നുകൊണ്ട് ലോകം മുഴുവനും നമ്മള് ഇരിക്കിന്നെടത്തിന്നും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോള് ഈ ഐ റ്റി മേഖലയെന്നു പറയുന്നതും അപ്പോള് ഇങ്ങനുള്ള സാങ്കേതികവിദ്യയൊക്കെ പഠിക്കുകയെന്നു പറയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോള് ഇന്നു നമ്മുടെ മുതിർന്ന തലമുറ ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ ഞങ്ങളുടെ സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഇല്ലേ അല്ലേ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അന്ന് നടന്നില്ല കാലം ഇങ്ങനെ കാലചക്രം ഇങ്ങനെ മാറി മാറി മാറി മറിഞ്ഞിങ്ങനെകൊണ്ടു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആ നമ്മള് വ്യത്യാസങ്ങള് വന്ന് നമ്മള് ഓരോന്ന് കണ്ടുപിടുത്തങ്ങള് പലവിധമായുള്ള കണ്ടുപിടുത്തങ്ങളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അപ്പോള് ശാസ്ത്രജ്ഞന്മാര് അവരുടെ മേഖലകളിങ്ങനെ വർധിപ്പിച്ചുകൊണ്ടിരിക്കു ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കു സാങ്കേതികമായ ഈ വിദ്യകളൊക്കെ ഒത്തിരിയുണ്ടാക്കുവാനായിട്ട് സാധിച്ചത് അത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു അപ്പോള് ഈ മേഖലകളൊക്കെ എന്താ പറയുന്നെ മേഖലകളൊക്കെ ഉള്ളത് നല്ലതാണ് പക്ഷെ ഒരു കാര്യം അത് എല്ലാവരും പഠിപ്പിക്കുകയെന്നുള്ളതാണ് അപ്പോള് ഇപ്പോള് ഒരു ഫോണ് ഒരു അ പ ഫോ ടച്ച് ഫോണ് നമ്മുടെ മുതിർന്നൊരു തലമുറയ്ക്ക് അവരുടെ കയ്യില് ടച്ച് ഫോൺ കൊടുത്താല് അവരെന്താ പറയുന്നെ എൻ്റെ മോനെ ഇതിനെ ഇതൊന്നും എനിക്കൊന്നും അറിയത്തില്ല എനിക്കീ നമ്പറൊക്കെ വൺ റ്റു ത്രീയൊക്കെ ഉള്ളതും കുത്തിയൊക്കെ എന്തേലും ചെയ്യാനും അങ്ങനൊക്കെയുള്ള ചെറിയ ആ ഫോണ് അറിയത്തുള്ളൂ എനിക്കൊന്നും അറിയത്തില്ല ഞാനിതേലോട്ട് തൊട്ടാല് അത് മാറിപ്പോകും എന്നല്ലെ അങ്ങനൊക്കായിരിക്കും അവര് പറയുന്നത് പക്ഷെ നമ്മളീ ഇ ഇങ്ങനെയുള്ള സാങ്കേതികമായ വിദ്യകളൊക്കെ നമ്മള് ഇറക്കുന്നുണ്ട് എങ്കില് അത് മ ലോകത്തിന് പഠിപ്പിച്ചുകൊടുക്കണം അല്ലെങ്കില് ഇപ്പോള് സാക്ഷരതാ ക്ലാസ് ഇറക്കി എത്രയോ മ പ്രായം ചെന്നവര് എത്രയോ പത്തും എൺപതും എൺപത്തിയഞ്ചും തൊണ്ണൂറും വയസ്സ് പ്രായം ചെന്നവരാണ് ആ ക്ലാസ്സ് അറ്റൻറ്റ് ചെയ്ത് നമ്മള് ഈ ഇപ്പോഴത്തെ തലമുറയെക്കാളും ഒത്തിരിയറിവ് നേടിയത് അപ്പോള് അതുപോലെ ആ അതും ഒരടിസ്ഥാന വിഷയമാക്കി ഇത് കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പോള് ഇപ്പോള് പഠിക്കുന്ന പിള്ളാർക്കൊക്കെ അടിസ്ഥാന വിഷയമായിട്ട് സ്കൂളുകളിലൊക്കെ ഉണ്ട് പക്ഷെ അതല്ല കുറച്ചുകൂടെ പുറകോട്ട് പോയി കാലം പുറകോട്ട് കുറച്ചുകൂടെ കാലം പുറകോട്ട് കൊണ്ടുപോയിട്ട് ആ അങ്ങനെ ഉള്ള തല ഈ പിന്നെ സാക്ഷരതാ ക്ലാസ് നടത്തിയ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആ തലമുറയ്ക്ക് ആ ഈ അടിസ്ഥാന വിഷയമായിട്ട് ഇത് കൊടുത്ത് ഇത് കൈകാര്യം ചെയ്യുവാനായിട്ട് അവരെ അവരെ പഠിപ്പിക്കണം അവരെ പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യം അവർക്കുണ്ടാക്കണം ഉണ്ടാക്കിക്കൊടുത്തവരെ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കുമ്പോള് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ അവരത് കൈകാര്യം ചെയ്യും അത് കഴിയുമെന്ന് നമുക്ക് വിശ്വാസിക്കുക തന്നെ ചെയ്യാം അല്ലേ വിശ്വസിക്കുക തന്നെ ചെയ്യാം അപ്പോള് അവർക്കന്ന് എന്തുകൊണ്ടവർക്കിപ്പോള് അറിയാതെ പോയത് അവരുടെ കാലത്ത് ഇങ്ങനെയുള്ള സാങ്കേതികവിദ്യകളൊന്നുംതന്നെ ഇല്ലായിരുന്നു അല്ലേ കുറച്ച് തലമുറയാ അല്ലേ ആയിട്ടുള്ളൂ പിന്നെ സെൽഫോണൊക്കെ ആയിട്ട് ഇപ്പോള് സെൽ ഫോണ് ചെറിയ സെൽ ഫോണൊക്കെ അവരും കൈകാര്യം ചെയ്യുന്നില്ലേ ഇപ്പോള് ടച്ചൊക്കെ ആയപ്പോള് അവർക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളെ അപ്പോള് ആ അങ്ങനെയപ്പോള് കംപ്യൂട്ടര് ഇപ്പോള് എല്ലാം ഇന്ന് നമ്മള് പറയുന്നെ എന്താ കമ്പ്യൂട്ടര് യുഗമാണ് എല്ലാം വിരൽത്തുമ്പിലാണെന്നല്ലേ നമ്മള് പറഞ്ഞിരിക്കുന്നത് ആ അപ്പോള് അതുപോലെ അതും അവരെക്കുടിച്ച് അവര് അവർക്കുംകൂടെ ഇത് ഉപകാരപ്രദമായ രീതിയില് ഒന്നു ഒരു ഇതിനുള്ള ഈ സാ പുതിയ തലമുറയെ പുതിയ വിദ്യ രീതികളൊക്കെ ഈ പഴയ തലമുറകൾക്കൂടെ ഒന്നു ക്ലാസ്കളിലൂടെയോ അല്ലെങ്കിൽ അവരെ എല്ലാവരുടെയും ഒന്നിച്ചുകൂട്ടി നമ്മുടെ പിന്നെ പഞ്ചായത്ത് തലത്തിലോ അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെയാക്കി ഇതിനെക്കുറിച്ചൊക്കെയുള്ളു ഒരു അറിവ് പകർന്നുകൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോള് അത് അതങ്ങനെ നടത്തണം അത് വേറെ അവർക്കും പ്രയോജനപ്പെടില്ലേ അത് നമ്മളോടൊപ്പം അവരും എല്ലാം കണ്ടും കേട്ടും പഠിച്ചും അറിവ് നേടിയും അവരും നമ്മളോടൊപ്പം എത്തിച്ചേരട്ടെ അതാണ് ഞാനിതീനിന്ന് ഉദ്ദേശിക്കുന്നത്